ഇരുപത്തൊന്ന് പത്ത് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഇരുപത്തി രണ്ട് ഒൻപത് രണ്ടായിരത്തി പതിമൂന്ന് അഞ്ച് പത്ത് രണ്ടായിരത്തി പതിനഞ്ച് പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട്